മൃഗങ്ങളെ വളർത്തുന്നതിൽ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് അവർ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാറില്ല കാരണം എന്താ വച്ചാൽ അവർ കഷ്ടപ്പെടുന്നതനുസരിച്ച് ഇൻഷുറൻസൊക്കെ ആണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ കിട്ടാൻ പാടാണ് പിന്നെ ഉള്ളത് പിന്നെ പശുക്കളെ പശു അഞ്ചും ആറും പശുക്കളെ നമ്മൾ വളർത്തുന്നവരുണ്ട് അവർ വളർത്തി കഴിയുമ്പോൾ അതിങ്ങൾക്ക് നമ്മൾ സാധാരണ നമ്മൾ പശുക്കളെ വളർത്തുന്നത് ഒത്തിരിയും കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് പശുക്കളെ വളർത്തുക എന്നുള്ളത് അതിങ്ങളുടെ പുറകിൽ നിന്ന് നമുക്ക് മാറാനേ ഒക്കത്തില്ല അതിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നമ്മൾ അതിങ്ങൾക്ക് തീറ്റ കൊടുക്കാനും കുടി കൊടുക്കാനും അതിങ്ങളെ കുളിപ്പിക്കാനും പിന്നെ അതിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ അതിന് ചികിത്സ നടത്താനും ഒക്കെയായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരു കർഷകനെ സംബന്ധിച്ചുണ്ട് പിന്നെ എന്താ ഉള്ളതെന്നുള്ള അതിങ്ങൾക്ക് വേണ്ട തീറ്റികൾ വാങ്ങി നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്നവരുണ്ട് പിന്നെ പിന്നെ നമ്മൾ അധികം പറമ്പുകളൊന്നും ഇല്ലാത്തവരും പശുക്കളെ വളർത്തുന്നവരുണ്ട് അത് കൂട്ടിലിട്ട് നമ്മൾ രാവിലെ പശുവിനെ കറവയെല്ലാം കഴിഞ്ഞ് കുളിപ്പീരെല്ലാം കഴിഞ്ഞ് കറവയെല്ലാം കഴിഞ്ഞ് നമ്മൾ പശുക്കളെ അഴിച്ചു പുറകിൽ പുറത്ത് കെട്ടി അതിങ്ങളുടെ കൂട് കഴുകി വൃത്തിയാക്കി എല്ലാം എല്ലാം വൃത്തിയാക്കി ഉണക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും പശുക്കളെ അകത്ത് കയറ്റി കെട്ടുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ പശു ഒരു പശുക്കളെ ഒരു പശുവിനെ വളർത്തിയാലും നാല് പശുക്കളെ വളർത്തിയാലും പത്ത് പശുക്കളെ വളർത്തിയാലും നമ്മൾ എല്ലാം ഒരുപോലെ തന്നെയാണ് കാരണം വച്ചാൽ ഇതിങ്ങളുടെ ഇതിങ്ങൾ നമ്മളിപ്പോൾ പശുവിനെ വളർത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാല് നമ്മൾ സ്റ്റോറിൽ കൊടുക്കുന്നവരുണ്ട് വീടുകളിൽ വന്ന് വാങ്ങിക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ ഈ വീടുകളിൽ തൈര് കച്ചവടം നടത്തുന്നവരൊക്കെയുണ്ട് അതുകൂടാതെ നമ്മുടെ പശു ഇപ്പം എന്തെങ്കിലും പശുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അതിനെ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള പശുക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് അതിങ്ങൾ അവരുടെ ഇൻഷുറൻസ് ചെയ്താലും നമുക്ക് അതിൻ്റെ അത് നമ്മൾക്ക് നഷ്ടമായ തുക നമുക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് കാരണം വച്ചാൽ അവർ പറയും അതുകൊണ്ടുവാ ഇത് കൊണ്ടുവാ അത് നിങ്ങളെ സ്വന്തം പശുവായിരുന്നോ അല്ലെങ്കിലത് ലോണെടുത്താണോ നിങ്ങൾ പശുങ്ങളെ വളർത്തിയത് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരു കർഷകനെ സംബന്ധിച്ചെടുത്തോളം കർഷകൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഈ ചിലപ്പോൾ മഴയൊക്കെയാണെങ്കിൽ പശുക്കളെ വളർത്താനെന്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് കാരണം വച്ചാൽ അതിങ്ങളെ തീറ്റ കൊടുക്കാൻ ബുദ്ധിമുട്ട് അതിങ്ങളെ ഒന്ന് മാറ്റിക്കൂട്ടിൽ നിന്ന് മാറ്റി കെട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കർഷകൻ അഭിമുഖിക്കുക അഭിമുഖീകരിക്കുന്നുണ്ട് പിന്നെ നമ്മളെപ്പോലെ ഒരു രണ്ടു ദിവസത്തേക്ക് മൂന്നു ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറുകയാണെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് കുട്ടികളോ അല്ലെങ്കിൽ ഹസ്ബൻ്റോ അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും നമ്മൾ നോക്കി ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊടുക്കും പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ എപ്പോഴും പുറകോട്ട് തന്നെയാണ് മൃഗങ്ങളെ വളർത്തി വളർത്തി നമ്മൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നേടാറില്ല പിന്നെ ചിലവർ വളർത്തുന്നത് അതൊരു ഹോബിയായിട്ട് കാണും കാരണം വച്ചാൽ പിന്നെ പശുക്കളും ആടുകളും അല്ലെങ്കിൽ കോഴികൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വീടുകളിൽ വളർത്തുന്നവർ വിനോദമായിട്ട് കാണുന്നവരുണ്ട് അവരെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഇതുംകൊണ്ട് ജീവിക്കുന്നവർക്ക് ഇതൊത്തിരിയേറെ ബുദ്ധിമുട്ടുകളാണ് ഒരു കർഷകനെ സംമ്പന്ധിച്ചെടുത്തോളം അവൻ ഇതുംകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനാണ് അവൻ നോക്കുന്നത് കാരണം വച്ചാൽ സാമ്പത്തികമായിട്ട് അവൻ പിന്നോക്കം നിൽക്കുന്നവനാണെങ്കിലെ രണ്ടു പശുക്കളെ വളർത്തുകയാണെങ്കിൽ അത്രയും ബാങ്കിൽ നിന്ന് ലോണെടുത്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതാത് തിരിച്ചടവ് വന്നില്ലെങ്കിൽ അതിന് പിന്നെ വേറെ പ്രത്യാഘാതങ്ങളാണ് സംഭവിക്കുക നമ്മൾ ഇപ്പം ഇപ്പോൾ കാണുന്നതുപോലെ കർഷകർ ആൽമഹത്യ ചെയ്യുന്നു അത് ഓരോരോ പ്രശ്നങ്ങൾ ഇതിനെ സംബന്ധിച്ചെടുത്തോളം ഒത്തിരിയേറെ ബുന്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർഷകരും ഉണ്ട്